സ്മാർട്ട് ഫോണെന്നു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരേ അധികം പ്രയോജനകരമായ ഒന്നാണ് നമുക്ക് പണ്ട് ടൈപ്പ് മൊബൈലായതുകൊണ്ട് ചെറിയൊരു മൊബൈലായതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നു പറയുന്നത് നമ്മൾക്ക് വളരെ സ്മാർട്ട് ഫോണാണ് സ്മാർട്ട് ഫോൺ പല തരത്തിലുള്ള ഫോണുകൾ നമുക്ക് ലഭിക്കും ഐഫോണ് അതുപോലെ തന്നെ ഓപ്പോ സാംസങ്ങ് അങ്ങനെ നോക്കിയ ആ കുറേ പല തരത്തിലുള്ള സ്മാർട്ട് ഫോണ് നമുക്കിപ്പോൾ ലഭിക്കും ഏറ്റവും ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണായിട്ടിപ്പോൾ പറയുന്നതു തന്നെ ഐഫോണാണ് അപ്പോൾ ഈ സ്മാർട്ട് ഫോണ് കൊണ്ട് നമുക്ക് പ്രയോജനം എന്നു പറയുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾക്കും വളരെ അധികം സഹായകരമാണ് ഈ സ്മാർട്ട് ഫോൺ എന്നു പറയുന്നത് അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് മെസ്സേജസ് നമ്മുടെ ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമുക്ക് പുലർത്തുവാൻ സഹായിക്കും നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും തന്നെ നമുക്ക് വളരെ സഹായകരമായിരിക്കും നമുക്കിപ്പോൾ അപ്പോൾ ഒരു ഫോൺ നമുക്കിപ്പോൾ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം ചെരുപ്പ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഏത് ആപ്പുകളിലൂടെയും നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നമുക്ക് കടയിൽപ്പോയി മേടിക്കണം എന്നൊന്നും ഇല്ല നമ്മൾ ഫോണിൽ ഓർഡർ ചെയ്താൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി എത്തിക്കും ആ ഒരു ഇത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ വന്നിട്ടുണ്ട് അതുപോലെതന്നെ നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മൾ എ ടി എം കാർഡ് നമ്മൾ യൂസ് ചെയ്യും അതുപോലെതന്നെ നമ്മൾ ബാങ്കുകളിൽ പോകും അതൊക്കെ ചെയ്യും പക്ഷേ അതിലുപരി നമുക്ക് ഫോണിൽ ഗൂഗിൾ പേ തുടങ്ങിയ മുതലായ കാര്യങ്ങളിൽ ഗൂഗിൾ പേയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പൈസ നമുക്ക് ഷെയർ ചെയ്യാം അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ബന്ധം പുലർത്തുവാൻ സാധിക്കും പിന്നെയെന്നു പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്ഥലം അറിയത്തില്ല അപ്പോൾ നമുക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ഓണാക്കിയിടാം ആ ആ ഒരു ലൊക്കേഷൻ്റെ ഇതു മൂലം നമ്മൾക്ക് ആ ഒരു ഇത് നമുക്ക് ആ സ്ഥലത്ത് എത്തിപ്പെടുവാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിലും ചില ഇത് ഇതിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് തീർച്ചായും നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടുവാൻ സാധിക്കും അതുതന്നെ സ്മാർട്ട് ഫോണ് വളരെ ഉപകാരം ഉപകാരമാണ് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം എന്നു പറഞ്ഞാൽ വളരേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്കിപ്പോഴൊരു എക്സാം നടക്കുകയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റിൻ നോക്കണമെങ്കിൽ അതിനായിട്ടുള്ള നോട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ വഴി നമുക്ക് സെർച്ച് ചെയ്തു നോക്കാം പിന്നെ ഈ എജ്യുക്കേഷനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറേ ആപ്പുകളുണ്ട് അതിനകത്ത് നമുക്ക് ക്ലാസ്സുകൾ എടുത്തുതരുന്ന നിരവധി ആളുകളുണ്ട് അവരും ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിന് നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം നമുക്ക് എന്താ ഉയർത്തുവാൻ സാധിക്കും നമുക്ക് എക്സാമൊക്കെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും എന്നു പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസം വളരെ അധികം ഇതു കൊടുക്കാം അതുതന്നെ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലും ബന്ധങ്ങളെന്നു പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളൊരു സ്കൂളിൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് എല്ലാവരെയും നമ്മൾ കണ്ടുമുട്ടണം എന്നില്ല ഏഹ് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നതോടെ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമ് ഈ ഒരിതിൽ വന്നതോടെ ചിലപ്പോൾ നമ്മളെ പഴയൊരു സ്കൂളിൻ്റെ ഇതിൽ നമ്മളെ എല്ലാവരേയും ഉൾപ്പെടുത്തുന്ന ഒരു വാട്സആപ്പ് ഗ്രൂപ്പ് അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും അതിലൂടെ എന്താ പറയുക വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഠിച്ചുപോയ പഴയ സുഹൃത്തകളെ നമുക്ക് കാണുവാൻ സഹായിക്കും നമുക്ക് അതിലൂടെ നമ്മളുടെ ബന്ധങ്ങൾ പുലർത്തുവാൻ സാധിക്കും അതെന്നു പറയണ വളരെ അധികം ഉപകാരമാണ് പിന്നെയെന്നു പറയുകയാണെങ്കിൽ നമുക്ക് പണ്ടത്തെ ഫോണിൽ നിന്നും ഇപ്പോഴത്തെ ഫോണിലേക്കെന്നു പറയുമ്പോൾ നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഒരുപാട് അകലെയുള്ള ആൾക്കാരെ നമുക്ക് വീഡിയോ വീഡിയോ കോളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അവരെന്താണ് ചെയ്യുന്നത് അതു നമ്മളെ കാണിച്ചു തരും അങ്ങനെയുള്ളെ കാര്യങ്ങളൊക്കെ ഒരു സ്മാർട്ട് ഫോൺ നമ്മളെ വളരെ അധികം സഹായിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മക്കൊരു മൂവിയാണെങ്കിൽ നമ്മൾ തീയറ്ററിൽപ്പോയി തന്നെ കാണണം എന്നില്ല നമുക്കൊരു ടി വിയിലും കാണണം എന്നില്ല നമ്മൾക്ക് സ്മാർട്ട് ഫോണിൽക്കൂടി തന്നെ നമുക്ക് മൂവി കാണുവാൻ സാധിക്കും അതിലൂടെതന്നെ അതുപോലെ തന്നെ പിന്നെ റീൽസ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതിൽ റീൽസും കാര്യങ്ങളും നമുക്ക് സഹായിക്കും പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ പലയിടങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള ന്യൂസുകളും നമ്മളൊന്നും അറിയുവാനൊന്നും നമ്മൾ ശ്രമിക്കത്തൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു ടൈമിൽ നമ്മുടെ മൊബൈല് വളരെയധികം നമ്മളെ സഹായിക്കും ന്യൂസും കാര്യങ്ങളൊക്കെ അറിയുവാൻ ഇത് മൊബൈൽ ഫോണ് നമ്മളെ സഹായിക്കും വളരെ അധികം നമ്മളെ സഹായിക്കും നമുക്കിത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമുക്കുതന്നെ ഫോണിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാട്ടു കേൾക്കണമെങ്കിൽ നമ്മുക്ക് വേണമെങ്കിൽ പാട്ടു കേൾക്കാം ഫോണിലൂടെ തന്നെ നമുക്ക് പാട്ട് പാട്ടു കേട്ടുകൊണ്ട് നമുക്ക് ഈ യാത്ര ചെയ്യാം വായിക്കാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ നമ്മൾ ബുക്സ് വായിക്കണം എന്നില്ല ബുക്സ് വായിക്കാൻ താൽപര്യം ഇല്ലാത്തവരും ഉണ്ട് അപ്പോൾ ഈ ഫോണിൽതന്നെ നമ്മൾക്ക് നമുക്ക് നമുക്കാവശ്യം ഉള്ള പലതരത്തിലുള്ള ബുക്കുകളുണ്ട് ഇപ്പം നമുക്ക് ലഭിക്കും അപ്പോൾ അതുതന്നെ നമുക്ക് ഫോണിലൂടെയും നമുക്ക് ലഭിക്കും അത് നമുക്ക് കേൾക്കുകയും ചെയ്യാം വായിക്കുകയും ചെയ്യാം അതാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെയൊരു വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചില പ്രത്യേക നിമിഷങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നു പറയാം അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തും പിന്നെ ഇപ്പോഴെന്നു പറയുമ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ഉള്ള ഒരു ഫോം കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു ഇപ്പോൾ നമ്മളെടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു പ്രത്യേക നമ്മുടൊരിത് ഒരു സാഹചര്യം മൂലം നമ്മൾക്ക് എടുക്കാണ്ട് വന്നെന്നു വെക്ക് അപ്പോൾ അതൊരു ഫ്രണ്ടിനോടു പറയാം എനിക്ക് ഇന്നതുപോലൊരു ഇത് പേപ്പർ ആവശ്യമാണ് അതൊന്ന് ആയച്ചുതരാൻ പറയണം അത്യാവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ വളരെ പ്രയോജനകരമാണ് നമ്മുടെ ഈ സ്മാർട്ട് ഫോണ് എന്നു പറയുന്നത് വിളിക്കുവാനും വീഡിയോ കോൾ ചെയ്യാൻ മെസ്സേജ് ചെയ്യാൻ വിദ്യാഭ്യാസത്തിനും ഫുഡ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ നമ്മളിപ്പൊൾ ഒരു നമുക്ക് പച്ചക്കറി മേടിക്കണമെങ്കിൽ നമ്മൾ ടൗണിൽ പോകണമെന്നൊന്നും ഇല്ല നമ്മൾ ഫോണിൽതന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഇതുപോലുള്ള കാര്യങ്ങളും ഫുഡും പച്ചക്കറി നമുക്കെന്താണ് ആവശ്യമുള്ളത് അതൊക്കെ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരും എന്ന് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഫോൺ സ്മാർട്ട് ഫോണിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നു പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾതന്നെ നമ്മുടെ ഫോണിൽ അവൈലബിളായിട്ട് നമുക്ക് ലഭിക്കും നമ്മളൊന്നിനു തന്നെ ഇറങ്ങണം എന്നില്ല ഫോണിൽ തന്നെ എന്താണെങ്കിലും നമുക്ക് ലഭിക്കും എന്നത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് സ്മാർട്ട് ഫോണിനെ പ്രയോജനപ്പെടുത്താം എന്നതാണ്